ഇപ്പൊൾ നമ്മൾ അങ്ങനെ എന്താ പറയുക ഓൾ മോസ്റ്റ് പഴയ തലമുറയിലും യുവ തലമുറയിലും പെടാത്ത ഒരാൾ തന്നെയാണ് അപ്പോൾ ഞാനിപ്പോൾ നോക്കുമ്പോൾ നമുക്ക് എന്താ പറയുക പണ്ടുകാലത്തെ ആൾക്കാരെയും ഇന്നത്തെ കാലത്തെ ആൾക്കാരെയും തമ്മിൽ ഒരിക്കലും കംപയർ ചെയ്യാൻ പറ്റില്ലെന്ന് തന്നെയാണ് ഞാനും പറയുന്നത് കാരണം പണ്ടുള്ളവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഇപ്പോൾ നല്ല രീതിക്ക് തന്നെ ശരീരം അനങ്ങി ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു കൂട്ടം ആൾക്കാർ തന്നെയായിരുന്നു എന്നാൽ ഇന്നത്തെവര് കൂടുതൽ എന്താ പറയുക ഓരോ കമ്പനികളിലും അവിടെയും ഇവിടെയും ഒക്കെ പോയിട്ട് വർക്ക് ജോലി ചെയ്യുന്നില്ലെന്നല്ല ചെയ്യുന്ന ജോലിയിൽ സിമ്പിൾ ആയിട്ടുള്ള ജോലികളാണ് കൂടുതലും അതായത് ശരീരത്തിന് ഒന്നും വലിയ വ്യായാമം ഒന്നും കിട്ടാത്ത രീതിയിലുള്ള ജോലികളാണ് കൂടുതലും ചെയ്യുന്നത് പിന്നെ പണ്ടത്തെ എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെയൊക്കെ വസ്ത്രധാരണം എന്ന് പറയുമ്പോൾ എന്തായിരുന്നു നമുക്ക് അറിയാവുന്നതാണ് നല്ല അടക്കത്തോട് ഒതുക്കത്തോടെ ഒക്കെയായിരുന്നു എന്നാൽ ഇന്നത്തെ തലമുറയിൽ ഉള്ള കുട്ടികളുടെ വസ്ത്രധാരണം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കാരണം ഓൾമോസ്റ്റ് ഫുള്ള് ഫ്രീക്ക് അങ്ങനെയുള്ള ഒരു സ്റ്റൈലിലേക്കാണ് കുട്ടികളൊക്കെ മാറിപ്പോയിരിക്കുന്നത് അപ്പോൾ അതൊക്കെ എന്താ പറയുക പണ്ടത്തെ തലമുറ ഇന്നത്തെ തലമുറയും തമ്മിൽ നല്ലൊരു അന്തരം ഉണ്ടെന്ന് തെളിയിക്കുന്നുണ്ടെന്നാണ് എൻറെ ഒരു അഭിപ്രായം